ഗ്രാമീണ മേഖലയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം മെച്ചപ്പെടുത്താൻ സർക്കാർ വളരെ അധികം പദ്ധതികൾ നടപ്പിലാക്കിയിട്ടും ഉണ്ട് അത് പ്രാവർത്തികം ആക്കിയിട്ടുമുണ്ട് സ്കൂളുകളിൽ പുതിയ പ് സ്മാർട്ട് ടി വികളും അതുപോലെ തന്നെ കമ്പ്യൂട്ടറുകളും അങ്ങനെ മൊത്തത്തിൽ സ്കൂളുകൾ മെച്ചപ്പെടുത്താനും സ്കൂളിന്റെ നിലകൾ അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ലൈബ്രറികൾ അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ടോയിലറ്റുകൾ ഇവയെല്ലാം നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നീ ഇത്രയെക്കെ നടപ്പിലാക്കിക്കൂടെ നമ്മുടെ നാ നം കേരളത്തിലെ വിദ്യാഭ്യാസം എപ്പോഴും ഒരു ഡ്രോ ബാക്കുള്ള വിദ്യാഭ്യാസമാണ് കാരണം എന്തെന്ന് വെച്ചാൽ ഇപ്പോഴും പഴയ കുറെ നമുക്ക് ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ നമ്മുടെ സിലബസിൽ അവർ സർക്കാർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടിയതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത അനേകായിരം വിവരങ്ങൾ ഇവർ ഈ പാഠ്യ പുസ്തകത്തിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ ചില ആൾക്കാർ അവരുടെ കുട്ടികളെ സ്കൂളുകളിൽ വിടാൻ താല്പര്യപ്പെടുന്നില്ല കാരണങ്ങൾ എന്തോന്നോക്കെ വെച്ചാൽ ചിലവർ അവര്രുടെ കുട്ടികളെ മറ്റ് ആരുമായി ഇടപെടാൻ ഇടപെടുന്നത് പ്രത്യേകിച്ച് അവർ അവർ മാതാപിതാക്കൾ തന്നെയാണ് കുട്ടികൾക്ക് ഗുരുക്കളായി മാതാപിതാക്കൾ തന്നെ കാണുന്നത് അപ്പം മറ്റൊരു ഗുരുവിൻ്റെ അല്ലെങ്കിൽ മറ്റ് ടീച്ചർമ്മാരുടെ ഒരു സാന്നിധ്യം അവർ ആഗ്രഹിക്കുന്നില്ല രണ്ടാമത്തെ കാര്യം ഇപ്പൊഴത്തെ മാതാപിതാക്കൾ പണ്ടത്തെ മാതാപിതാക്കൾക്ക് മക്കൾ മക്കളുടെ കാര്യത്തിൽ വളരെ സെൻസിറ്റീവായിട്ടുള്ളവർ ആണ് കാരണം ഇപ്പം പണ്ട് ഇപ്പോൾ എന്തേലും തെറ്റ് ചെയ്താൽ ഗുരുക്കന്മാർ ശിക്ഷിച്ചാലോ അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞാലോ കുട്ടികൾ കൂടുതലും പെട്ടന്ന് അവരുടെ മാനസിക നില പെട്ടന്ന് മാനസിക ആരോഗ്യം പെട്ടന്ന് കുറഞ്ഞ് വരുവാണ് അപ്പോൾ അത് പേരെൻസിനെ വളരെ അധികം ബാധിക്കുന്നുണ്ട് ഇതൊക്കെ പേടിച്ചിട്ടവർ കുട്ടികളെ വിദ്യാലയങ്ങൾ വിടാറില്ല പിന്നെ ചില കൂടുതലായും ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം ഇഷ്ടപ്പെടാത്ത അനേകായിരം മാതാപിതാക്കൾ ഉണ്ട് അവരും അവരുടെ കുട്ടികളെ അടുത്തുള്ള സ്കൂളുകളിൽ വിടാൻ തയ്യാറാവുന്നതല്ല കുട്ടികൾക്ക് എന്താണ് വേണ്ടത് അത് തന് ആ അവർ തന്നെ പഠിപ്പിച്ച് കൊടുക്കാനാണ് കൂടുതലും താല്പര്യപ്പെടുന്നത്